ഹലോ ആ ആ സർ നമുക്കേ അവിടെ ഇപ്പോൾ ക്ലൈമറ്റ് അവസ്ഥയൊക്കെ എന്താണ് നമുക്ക് അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ എല്ലാം അവൈലബിൾ ആണല്ലേ നമുക്ക് ഇപ്പോൾ ട്രക്കിംഗിനൊക്കെ പറ്റിയ സ്ഥലം ഏതൊക്കെയാണ് ഉള്ളത്

ആ ഓക്കെ അറിയാം അറിയാം ആ മറ്റേ ഒരു ഹാർട്ടിൻ്റെ ഷെയ്പ്പിലുള്ള ലേക്ക് ഒക്കെ ഉള്ള സ്ഥലം അല്ലേ ആ ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി ആ ഓപ്പൺ ആണല്ലേ

ആ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ പോയിട്ടില്ല ആ ഹാ ഹാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഓക്കെ നമുക്ക് അപ്പോൾ സ്റ്റേ ചെയ്യാൻ അവിടെ എങ്ങനെ എങ്കിലും എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടോ റിസോർട്ടുകൾ അറേഞ്ച് ചെയ്യാം അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളൊരു പത്ത് പതിനഞ്ച് പേർ ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം ആ റെഡി ആക്കാം അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ

അല്ല നമുക്കിപ്പോൾ ടോട്ടൽ ഇപ്പോൾ വയനാട്ടിൽ ഉള്ള സ്ഥലങ്ങൾ മൊത്തം കണ്ടുതീർക്കാൻ എത്ര ദിവസം വേണ്ടിവരും അഞ്ച് ദിവസത്തിന് മുകളിൽ എടുക്കും അല്ലേ

ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ എന്തായാലും നോക്കിയിട്ട് വരാം ഓക്കെ ഞങ്ങൾ അപ്പോൾ വരുന്നതിന് ഒരു രണ്ടു ദിവസം മുമ്പ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ പോരേ ആ ഓക്കെ അപ്പോൾ നിങ്ങളെ ഞാൻ ഞാ ഒരു രണ്ടാഴ്ച്ചക്കുള്ളിൽ എത്തും അപ്പോൾ വരുന്നതിന് മുമ്പ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ടേ എന്തായാലും വരുള്ളൂ ഓക്കെ അപ്പൊഴത്തേക്കും നിങ്ങൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞാൽ മതി പേയ്മെൻറ്റിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ അഡ്വാൻസ് എന്തെങ്കിലും വേണ്ടിവരുമോ ആ ഓക്കെ അത് ഞങ്ങൾ എന്നിട്ട് പേ ചെയ്യാം ആയിക്കോട്ടെ ശരി